ഞാൻ എൻ്റെ മൊബൈൽ നമ്പറ ഒന്ന് ചേഞ്ച് ആക്കി അപ്പോൾ പാൻ കാർഡിലേക്ക് ആ നമ്പർ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ രേഖകളാണ് തരേണ്ടത്

എന്തൊക്കെ ഡോക്യൂുമെൻസ് വേണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒന്ന് പറയുകയാണെങ്കിൽ അതിന് അനുസരിച്ച് നിങ്ങളുമായി കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്പറ് മാറ്റിയപ്പോൾ പാനൽ കാടിലെ നമ്പറും മാറ്റണം എന്ന് തോന്നി പിന്നെ അവസാനം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന നിലക്കാണ് നിങ്ങളുമായി കോൺടാക്ട് ചെയ്യുന്നത് എന്തെല്ലാം ആണ് അതിന് വേണ്ടി കൊണ്ടു വരേണ്ടത് അത് ഒരു ദിവസം കൊണ്ട് തന്നെ റെഡി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സഹകരണം ആണ് നമുക്ക് വേണ്ടത് എന്തൊക്കെ വേണ്ടതെന്ന് പറയണം അതേമാതിരി എൻ്റെ പുതിയ നമ്പർ ആറ് രണ്ട് എട്ട് മൂന്ന് ഏഴ് നാല് ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം പാൻ കാർഡിലേറ്റ് ലിങ്ക് ചെയ്യണം എന്നാണ് എൻ്റെ അപേക്ഷ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്നാൽ അതിനനുസരിച്ച് ചെയ്യാമായിരുന്നു